മലയാളഭാഷ ഒരുപാട് വാക്കുകളാലും പ്രയോഗങ്ങളാലും ശ്രദ്ധേയമാണ് ഞാൻ എനിക്കേറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ താരതമ്യം ചെയ്യുന്ന ഒരു പ്രയോഗത്തെപ്പറ്റി ഞാൻ സംസാരിക്കാം എല്ലാവരും കേട്ടിട്ടുണ്ടാകും അടി തെറ്റിയാൽ ആനയും വീഴും അല്ലേ അടി തെറ്റി അപ്പോൾ ആന വീഴുന്നു അതായത് ആനയെന്നുള്ളത് ബൗദ്ധികപരമായി അതായത് ശരീരത്താൽ വലിയൊരു മൃഗമാണ് അത് അത് അടി തെറ്റുമ്പോൾ അതായത് അടി തെറ്റുമ്പോൾ ആന വീഴും ജീവിതത്തിൽ ഞാൻ പല കാര്യങ്ങളും ഇതുമായി താരതമ്യപ്പെടുത്തിട്ടുണ്ട് എനിക്കിത് കൂടുതല് എൻ്റെ മനസ്സിലേക്ക് വന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനൽ മത്സരത്തിൽ ബാഴ്സലോണ എന്ന ഫുട്ബോൾ ക്ലബ് ഇറ്റലിയിലെ പ്രമുഖരായ ഇൻറ്റർ മിലാൻ എന്ന ഫുട്ബോൾ ക്ലബ്ബിനെ നേരിടുന്നു അപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കാര്യം പറയാം ബാഴ്സലോണ ശക്തരാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഏറ്റവും ഫേവറേറ്റുകളായ ടീമുകളിൽ ഒന്നാണ് ബാഴ്സലോണ അതിനാൽ ബാഴ്സലോണ ശക്തരാണ് ബാഴ്സലോണ തുടരെ തുടരെ ഗോളടിക്കാനുള്ള ആക്രമണം നടത്തുന്നു ഇൻറർ മിലാൻ ബാഴ്സലോണയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ദുർബലരാണ് പക്ഷെ ബാഴ്സലോണ മുഴുവൻ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ അവരുടെ പ്രതിരോധത്തെ മറക്കുന്നു അങ്ങനെ മത്സരത്തിൽ ബാഴ്സലോണ പരാജയപ്പെടുന്നു അപ്പോൾ എനിക്കോർമ്മ വന്നതാണ് അടി തെറ്റി അപ്പോൾ ആന വീണു അതായത് ആക്രമണം പ്രതിരോധം മറന്നുകൊണ്ടാകരുത് ആക്രമിക്കാം പക്ഷെ പ്രതിരോധമുള്ള കാര്യം അവർ ഓർക്കണം അല്ലേ പ്രതിരോധിക്കേണ്ടതുണ്ട് ആക്രമിക്കുന്നതോടൊപ്പം അതാണ് അപ്പോൾ ആ മത്സരത്തിൽ ബാഴ്സലോണ ആക്രമിക്കാൻ മാത്രം ശ്രദ്ധിച്ചപ്പോൾ അവരുടെ പ്രതിരോധം പൂർണ്ണമായി പരാജയപ്പെട്ടു അങ്ങനെ അവർ ആ മത്സരത്തിൽ പരാജയപ്പെട്ടു അതായത് നമുക്ക് പറയാം അടിതെറ്റിയപ്പോള് ആന വീണു അതുപോലെ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ ഒറ്റക്കാര്യം ഒറ്റപ്പൂതി അങ്ങനെ ഒരുപാട് വാക്കുകളും പ്രയോഗങ്ങളും കൊണ്ട് മലയാളഭാഷ സമ്പന്നമാണ് മലയാളഭാഷ സംസാരിക്കുന്ന ഒരു വ്യക്തിയെന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്നു കാരണം മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം മലയാളം വ്യത്യസ്തമാണ് അമ്മയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നൊക്കെ പറയുമല്ലോ അതുപോലെ ഞാൻ ജനിച്ചത് കേരളത്തിലാണ് ഞാൻ സംസാരിച്ചതും മലയാളമാണ് പക്ഷേ മറ്റ് ഭാഷകളിൽ നിന്നെല്ലാം മലയാളം വ്യത്യസ്തമാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഭാഷയുടെ ഘടനയും സംസാരത്തിലെ എളുപ്പവും മറ്റും കൊണ്ടാണ് പിന്നെ മലയാളഭാഷ സംസാരിക്കുന്ന ഒരാളെന്ന രൂപത്തില് എനിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആനുകൂല്യം എന്താണെന്നുവെച്ചാൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എപ്പോള് ഏത് ഭൂഖണ്ഡത്തിൽ ഞാൻ സഞ്ചരിക്കുകയാണെങ്കിലും ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാകുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം മലയാളം സംസാരിക്കുന്നവർ ലോകത്തിൻ്റെ അങ്ങിങ്ങായി വ്യത്യസ്ത ദിക്കുകളിൽ ജീവിക്കുന്നുണ്ട് അതിനാൽ മലയാളഭാഷ സംസാരിക്കുന്നയാളെന്ന രൂപത്തിൽ മലയാള ഭാഷ സംസാരിക്കുന്നയാളെന്ന രൂപത്തിൽ ഞാൻ മലയാളം സംസാരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു